ഹലോ ഹലോ ക്യാബ് ഡ്രൈവർ ആയിരുന്നു ആ ആ എറണാകുളത്ത് വരെ ആ ഉണ്ട് അവൈലബിൾ ആണ് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഫ്രണ്ട് സീറ്റും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് പിന്നെ എറണാകുളം വരെ സെവെൻ സീറ്റോ മാം നമുക്ക് ഇന്നോവയാണ് സെവൻ സീറ്ററായിട്ട് ഇപ്പം ഉള്ളത് ബാക്കിയുള്ളതൊക്കെ റെന്റിനു കൊടുത്തേക്കുവാണ് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കോടിന്ന് നമുക്ക് എറണാകുളം വരെ പോവാൻ വേണ്ടീട്ട് ആറായിരം രൂപവരും ആറായിരം ആ അപ്പം ആ എല്ലാം കൂടി എല്ലാം കൂടി ആറായിരം രൂപ

ഫോർ സീറ്റാറാവുമ്പോൾ നമുക്ക് അയ്യായിരം രൂപ ഒരായിരം രൂപേൻ്റെ വ്യത്യാസമെ ഉള്ളൂ ആ അത്രേ ഉള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം ആ ആ ആണല്ലേ സാറ്റ് നെക്സ്റ്റ് സാറ്റർഡയാ ആ അതുണ്ടാവില്ല ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഏത് വണ്ടി വേണമെങ്കിലും ചെയ്തെരാം കുഴപ്പമില്ല മാഡത്തിന് ഏതാണോ വേണ്ടത് അത് നമ്മൾ ചെയ്തരും ആ പറഞ്ഞാൽ മതി ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ രാവി നമ്മൾ നൈറ്റ് പോയിക്കഴിഞ്ഞാൽ രാവിലെ എന്തായാലും എത്തും രാവിലൊരു ആറ് ആറരയാവുമ്പഴേക്കും എത്തും രാവിലെ ആവണെന്നില്ല അതിനുമുന്നെ എത്തും നമുക്ക് പിന്നെ എല്ലായിടത്തും നിർത്തി നിർത്തി വേണമെങ്കിൽ പോവാം എങ്ങനെ ആ ഓക്കെ ഓക്കെ നമുക്കപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ പോരാം അതായത് ഒരു മൂന്ന് മണി ആ ടൈമൊക്കെ ആവുമ്പഴേക്കും നമുക്ക് വേണേൽ നിർത്തി നിർത്തി മെല്ലെ മെല്ലെ പോയാൽ പോരെ ആ അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം ഓക്കെ ആ വണ്ടി ഏതാ വേണ്ടേന്ന് ഒന്ന് നോക്കീട്ട് പറഞ്ഞാൽ മതി ആ ഓക്കെ മാം